ഞാൻ നേരത്തെ ഓഡർ ചെയ്ത പഞ്ചസാര കടുകു ബിരിയാണി അരി ശർക്കര സേമിയ വല്ല്യുള്ളി തക്കാളി വലിയ ജീരകം പപ്പടം ഈ സാധനങ്ങളിൽ നിന്നും എനിക്ക് പഞ്ചസാര കടുക് തക്കാളി വല്ല്യുള്ളി ഇതൊന്നും വേണ്ട പകരം ചെറുനാരങ്ങാ വെളിച്ചെണ്ണ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതാണ് വേണ്ടത് സാധനം നിങ്ങൾ പറഞ്ഞ സമയത്ത് എത്തിക്കുമല്ലോ എത്തിക്കില്ലേ കഴിയുന്നതും നേരത്തെ എത്തിക്കാൻ നോക്കണേ അതിൻ്റെ കൂടെ അതിൻ്റെ ബില്ലും കൊടുത്തയക്കണം കേട്ടോ പിന്നേ പിന്നെ ഒരു കാര്യം ഇപ്പോഴാണ് ഓർത്തത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി അതിൻ്റെ കൂടെ വെക്കണം കേട്ടോ ഇതിൻ്റെ പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം കേട്ടോ